ഇന്ത്യന് ആരോഗ്യ സംരക്ഷണ സംവിധാനം നേരിടുന്ന ഏറ്റവും വെ പ്രധാനപ്പെട്ട വെല്ലുവിളി വെല്ലുവിളി ആണ് അത് ശരിക്കും പറഞ്ഞാൽ മായം ചേരുന്ന ആഹാര പദാര്ത്ഥങ്ങള് ഈ മായം കലര്ന്ന ആഹാര പദാര്ത്ഥങ്ങള് നിര്ത്തലാക്കുവാനോ അത് തീര്ത്തും അവോയിഡ് ചെയ്യാനോ ഉള്ള ഒരു നിയമാ നിയമം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും അതാരും പ്രാവര്ത്തികമാക്കുന്നില്ല അത് തന്നെയാണ് ഇന്ത്യന് ആരോഗ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി